ആർട്സ് സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലേ ഞാൻ ഇപ്പോൾ കോഴിക്കോടേക്ക് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നതാണേ ഒരു ഗവൺമെന്റ് എമ്പ്ലോയീ ആണ് ഞാൻ ആ അപ്പോൾ മാഡം എൻ്റെ കുട്ടീനെ അവിടെ ചേർക്കാൻ വേണ്ടിയിട്ടായിരുന്നേ സ്കൂളിലേക്ക്

മാഡം എട്ടാം ക്ലാസ്സിലേക്ക് നമ്മൾ നെക്സ്റ്റ് വീക്ക് തന്നെ ഇവിടെയെത്തും കോഴിക്കോടെത്തും ആ ഓ അതെ നെക്സ്റ്റ് വീക്ക് ആണ്

ഓക്കെ അപ്പോൾ നമ്മളതിൻ്റെ പേയ്മെന്റ് എങ്ങനെയാണ് അവിടെ സ്കൂളിൽ വരുമ്പോൾ ചേർക്കാൻ വരുമ്പോൾ പേ ചെയ്താൽ മതിയായിരിക്കുമല്ലേ ഓക്കെ ഞാനെന്തായാലും ആ ഓക്കെ എന്നാൽ ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ സ്കൂളിലേക്ക് വരാം വന്നിട്ട് നമുക്കവിടെനിന്ന് എന്തായാലും ചെയ്യാം ആ

ഓക്കെ ഓക്കെ വേറെ എന്തെങ്കിലും നമുക്കെന്തൊക്കെ പ്രൂഫുകളും കാര്യങ്ങളൊക്കെയാണ് അവിടെ വേണ്ടത്

ആ ഞാൻ തന്നെയായിരിക്കും വരുന്നത്

ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഫീസിന്റെ കാര്യമൊക്കെ നമുക്കവിടെനിന്ന് സംസാരിച്ചാൽ മതിയല്ലോ അല്ലേ

ഓക്കെ ഓക്കെ